ഞങ്ങളുടെ അടുത്ത പ്രദേശത്തെങ്ങും അങ്ങനെ നെയ്ത് തുന്നൽ രീതികൾ ചെയ്യുന്ന ആളുകളും സ്ഥാപനങ്ങളും ഒന്നും ഇപ്പം ഇല്ല നമുക്ക് ഇതൊക്കെ ഇപ്പോൾ കെ കേട്ടറിവു മാത്രമാണുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതായത് അതിൽ പ്രത്യേകിച്ചു ഖാദി ഉത്പന്നങ്ങളേക്കുറിച്ചേ ഉള്ളൂ കുറച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് ഖാദി അതു പോലെ കാഞ്ചീപുരം കേട്ടിട്ടുണ്ട് അത് ഏതു സ്ഥലത്താണെന്നൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ടെന്നുള്ളതെ ഉള്ളു അല്ലാതെ നമുക്കതിനേപ്പറ്റി കൂടുതൽ കണ്ടറിവുകളൊന്നുമില്ല ഖാദി പിന്നെ കേ അതു കുറേ കേട്ടിട്ടുണ്ട് അതായത് പരിത്തി കൊണ്ട് പട്ടു കമ്പിളി ഇതൊക്കെക്കൊണ്ട് കൈകൊണ്ട് ചർക്ക പോലെയുള്ള യന്ത്രങ്ങളുപയോഗിച്ച് നൂൽ നൂൽത്തതും അതു പോലെ കൈത്തറി ഉപയോഗിച്ച് ഇന്ത്യയിൽ നെയ്തെടുക്കുന്ന തുണിത്തരങ്ങളാണ് ഖാദി അല്ലെങ്കിൽ ഖദറെന്നൊക്കെ അറിയപ്പെടുന്നത് അന്ന് കേട്ടിട്ടുണ്ട് അതു പോലെ ഇവിടെ നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഖദർ അല്ലേൽ ഖാദി ഉത്പന്നങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളുണ്ട് ധാരാളം അതു പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ അടുത്തു തന്നെ പറയുകയാണെങ്കിൽ കോഴഞ്ചേരി ഖാദി ടെ ഒരു ഖാദി ഒരു ഷോപ്പുണ്ട് കോഴഞ്ചേരിയിൽ പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് ഖാദി ഉത്പന്നങ്ങൾ അത് ഇച്ചിരി കൂടി വലിയ രീതിയിൽ നടത്തുന്നൊരു ഷോപ്പുണ്ടായിരുന്നു ആറമ്മുള ആറമ്മുള അയിക്കരമുക്കെന്നു പറയുന്ന സ്ഥലത്ത് അതു നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നേ അങ്ങനെ ഖാദി ഉത്പന്നങ്ങൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അതിന്റെ ഷോപ്പുകൾ കണ്ടിട്ടുണ്ട് നമുക്കുള്ള അറിവിതാണ് മഹാത്മാഗാന്ധി ഉപയോഗിച്ചിരുന്നത് ഖാദി വസ്ത്രങ്ങളായിരുന്നെന്നു കേട്ടിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ഒക്കെ ധാരാളം ഖാദി വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു പിന്നെയുള്ള കാലത്തിപ്പം അതൊക്കെ കുറെയൊക്കെ നിന്നു പോയി ഇപ്പം വീണ്ടും കുറേയൊക്കെക്കൂടി പഴയതിനേക്കാൾ കൂടുതൽ ഇപ്പം കുറച്ചും കൂടിയിതൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇപ്പോഴൊക്കെ എത്രയൊക്കെ ആളുകളുപയോഗിക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല കുറേയൊക്കെ ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഖാദിയുടെയൊക്കെ ആണെങ്കിലുമിപ്പം പലയിടത്തും കണ്ടു നമ്മുടെ ചുരിദാർ മെറ്റീരിയൽസ് പോലും ഖാദിയിൽ ഇപ്പം വരുന്നുണ്ട് അപ്പം അതൊക്കെ ഇപ്പം വീണ്ടും അതൊക്കെ ഒന്ന് വരുന്നതെന്നു തോന്നും നമുക്കത് കാണുന്നുടനെ അത് അല്ലാതെ പിന്നെ കാഞ്ചീപുരം സാരികളൊക്കെ കാഞ്ചീപുരത്തൊക്കെ ആണ് അതൊക്കെ നിർമ്മിക്കുന്നതെന്നു കേട്ടിട്ടുണ്ട് അല്ലാതെ നമുക്കതിനെപ്പറ്റി കൂടുതലൊന്നുമറിയത്തില്ല പരമ്പരാഗത വസ്ത്രങ്ങളൊന്നും നമ്മൾ നിർമ്മിക്കാൻ നമുക്കറിയില്ല അതിനെപ്പറ്റിയൊന്നും അറിയില്ലാത്തതു കൊണ്ട് നമ്മളതിനൊന്നും ശ്രമിച്ചിട്ടുമില്ല അടുത്തറിവിൽപ്പോലുമാരും ഇതൊന്നും ചെയ്യുന്നുവരുമില്ല പിന്നതിനേപ്പറ്റി കൂടുതൽ പറയാൻ നമുക്കു പറ്റില്ല ഇത്രയൊക്കെ അറിയുകയുള്ളു